ആ മേഡം പറഞ്ഞോളൂ എങ്ങനെ ആ അതെ പറഞ്ഞോളൂ ഓണത്തിനാണോ ആ ഓഫർ ഉണ്ട് നമുക്ക് ഇപ്പം മൂവായിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇവിടെ കൂപ്പണും കാര്യങ്ങൾ ഒക്കെ ലഭ്യം ആണ് അതിൽ ഒന്നാം പ്രൈസ് എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ കാർ ആണ് നമുക്ക് കൊടുക്കുന്നത് പിന്നെ ആടി സെയിൽ എന്ന് ഒക്കെ പറഞ്ഞിട്ട് ഉള്ള ഓഫർ കാര്യങ്ങൾ ഒക്കെ ഉണ്ട് നമുക്ക് ഇപ്പം ഷർട്ടിനൊക്കെ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഫൈവ് ഹണ്ട്രഡ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന പ്രൈസിൽ ആണ് വരുന്നത് ആ മേഡത്തിന് ഇപ്പം എത്ര പേർക്ക് ഉണ്ടാവും മേഡത്തിന് മാത്രം ആണോ അതോ മൊത്തത്തിൽ അതായത് കുടുംബത്തിലേക്ക് മൊത്തം എടുക്കാൻ വേണ്ടിയിട്ട് ആണോ ഇരുപത്തിയഞ്ച് പേർ ഉണ്ടാവും ഓക്കെ നമുക്ക് ഇവിടെയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം ഇരുപത് എന്തായാലും ഇരുപത്തിയഞ്ച് പേർക്ക് എടുക്കുമ്പോൾ ഏകദേശം ഒരു പത്ത് ഇരുപതിനായിരം രൂപയ്ക്ക് മേളിൽ എന്തായാലും പോവുമല്ലോ അപ്പോൾ നമുക്ക് അത് നമുക്ക് അത് ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് നമുക്ക് കുറച്ച് തരാൻ വേണ്ടിയിട്ട് ഒക്കെ സാധിക്കും കാരണം നിങ്ങൾ അത്രയും ബൾക്ക് ആയിട്ട് എന്തായാലും എടുക്കുന്നത് അല്ലേ ആ അപ്പം നമുക്ക് എന്തായാലും പരമാവധി അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് ആണ് കുഴപ്പം ഒന്നും ഇല്ല ആ അതല്ലെ ഞാൻ പറഞ്ഞത് നമുക്ക് മൂവായിരം രൂപേന്റെ മുകളിൽ പർച്ചേസ് ചെയ്താൽ കൂപ്പൺ കാര്യങ്ങൾ ഒക്കെ ഉണ്ട് അപ്പം അതിൽ ഒന്നാമത്തെ പ്രൈസ് എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ കാർ ആണ് മാരുതീന്റെ സ്വിഫ്റ്റ് കാർ ആണ് നമ്മൾ ഒന്നാമത്ത പ്രൈസ് ആയിട്ട് കൊടുക്കുന്നത് രണ്ടാമത്തത് ചെറിയ ചെറിയ സമ്മാനങ്ങൾ ടി വി വാഷിംഗ് മെഷീൻ അങ്ങനെ ചെറിയ ചെറിയ സമ്മാനങ്ങൾ ആ അതിലും ഉണ്ട് അതെ അതെ ആ മേഡം വന്ന് കഴിഞ്ഞാൽ മതി നമുക്ക് ഇവിടെനിന്ന് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ ചെയ്തുതരാൻ വേണ്ടി സാധിക്കും ആ അതിൽ ഒന്നും മേഡം പേടിക്കേണ്ട കാര്യം ഒന്നും ഇല്ല നമുക്ക് ഇവിടെ പരമാവധി

ആ ഓക്കെ ഓക്കെ അങ്ങനെ ആണെങ്കിൽ നൈറ്റ് ഒരു പത്ത് മണി പത്ത് മണിക്ക് മുന്നെ വന്നാൽ മതി പത്ത് മണിക്ക് ആണ് ഞങ്ങൾ ക്ലോസ് ചെയ്യുന്നത് അതിന് ഒരു ഒൻപത് മണി മാക്സിമം നിങ്ങൾക്ക് ഒരു മണിക്കൂർ മതിയാവുമോ ഡ്രസ്സ് എടുക്കാൻ ഇല്ലെങ്കിൽ ഒരു എട്ട് മണി ആവുമ്പം പോരെ

ആ അത് ഓപ്പൺ ആക്കിത്തരാം കുഴപ്പം ഒന്നും ഇല്ല നിങ്ങൾക്ക് കുറച്ച് സമയം വേണ്ടതുകൊണ്ട് ആണ് ഞാൻ പറഞ്ഞത് ഒരു എട്ട് മണി ആവുമ്പം ഇപ്പം ഇപ്പം വരുവാണെങ്കിൽ ആ ഓക്കെ ഓക്കെ അങ്ങനെ ആണെങ്കിൽ പോന്നോളൂ കുഴപ്പം ഇല്ല വരുന്ന അന്ന് ഒന്ന് വിളിച്ച് പറഞ്ഞാൽ മതി ഞങ്ങൾ ഓപ്പൺ ആക്കി ഇനി ഇപ്പം അഥവാ വൈകുവാണെങ്കിൽ ഞങ്ങൾ ഓപ്പൺ ആക്കി വെച്ചോളാം കുഴപ്പം ഇല്ല ഓക്കെ